ഓട്ടം എൻ്റെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്താറുണ്ട് കാരണം ഞാൻ ഓടുമ്പോൾ എനിക്ക് മനസ്സിലുള്ള എൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കിവയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ എൻ്റെ വല്ല സ്ട്രെസ്സുണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഓട്ടം നല്ലതാണ് ഈ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനും കുറച്ച് വേദനകളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് കുറച്ചുകഴിഞ്ഞാല് നമുക്ക് സുഖമായിട്ട് അനുഭവപ്പെടും പിന്നേ ഓടുമ്പോൾ നമ്മൾ പാട്ട് കേട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് ഓടാനും ഒരുന്മേഷമൊക്കെ ഉണ്ടാവും ഈ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോള് അതിന് നല്ലൊരു സുഖമാണ് ഈ ഓടിക്കഴിഞ്ഞതിനുശേഷം നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു സുഖം അനുഭവപ്പെടും ശരീരത്തിനൊരു കുളിർമ്മയൊക്കെ വരും നമുക്ക് പിന്നെ പിന്നങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കൊരുന്മേഷം അനുഭവപ്പെടും നമ്മളേ ജോലികളൊക്കെ ചെയ്യാൻ നമുക്ക് കൂടുതൽ ഒരു താല്പര്യം വരും ഈ ഓടിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും കഴിക്കണം നമ്മൾ ഹെൽത്തിയായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കണം അപ്പോള് നമ്മളെ ശരീരത്തിന് നല്ല ഒരു ഗുണം നമുക്ക് കാണാൻ സാധിക്കും